പല കാലാവസ്ഥകളെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഓരോ ക്ലൈമറ്റിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും സപ്പോസ് മഴക്കാലമാകുമ്പോൾ ഒരുപാട് വെള്ളം നനഞ്ഞിട്ട് ഈ മണ്ണൊക്കെ ചുവട്ടിലെ മണ്ണൊക്കെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണ് ഈ കാറ്റും ഒരുപാട് വീശിയിട്ട് ചെടികൾ മറിഞ്ഞ് ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യതകളുണ്ട് വേനൽകാലത്തു വരുന്ന ബുദ്ധിമുട്ട് പറയുകയാണ് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമാണ് മെയിനായിട്ടുള്ളൂ വേനൽകാലത്ത് കാര്യമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല അപ്പോഴാണ് നമ്മൾ മഴക്കാലത്തെ പറയുകയാണ് വെച്ചാൽ സപ്പോസ് നമ്മളൊരു ഗാർഡൻ വെക്കുമ്പോൾ കൃത്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ കൃത്യമായിട്ട് അടിയിൽ ഒരു ബെയിസ് പോലെ തറ പണിതിട്ട് തറ മീൻസ് ജസ്റ്റ് കല്ലു കൊണ്ടായാലും എന്തെങ്കിലും കൊണ്ട് കുറച്ച് പൊക്കിയിട്ട് അതിൽ മണ്ണിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് വേ നമ്മൾ എവിടെയാണോ ഗാർഡൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നാല് ഒരു കല്ല് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നമ്മളൊന്ന് ഒരു ജെസ്റ്റ് ഒരു മിനി വോൾ പോലെ ഒന്ന് മാ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിലാണ് ഈ കുത്തി ഒലിക്കണലാണ് കടി കടുപ്പമുള്ള മഴ പെയ്യുമ്പോൾ ചുവട്ടിലുള്ള മണ്ണ് പോകാനും അതുപോലെ ചെടികളൊക്കെ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെത്തന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മഴക്കാലത്തെന്ന് പറയുന്നത് ഈ കാറ്റൊരുപാട് വീശും അപ്പം ഈ കാറ്റ് വീശുമ്പം നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു മുൻകരുതലാണ് ഈ അത്യാവശ്യം ഒടിഞ്ഞു വീഴാൻ പാകത്തിനുള്ള തണ്ട് തണ്ടായിട്ട് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാറ്റടിച്ചാൽ ഒടിഞ്ഞ് പോകാൻ സാധ്യതയെന്താണെന്നു വെച്ചാൽ നമ്മൾ താങ്ങ് കെട്ടി കൊടുക്കേണ്ടി വരും അത് കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കാറ്റ് വീശുമ്പോൾ ചെടികൾ ഒടിഞ്ഞ് വീഴാൻ ചാൻസ് ചാൻസുണ്ട് പിന്നെ നമ്മൾക്ക് വരുന്നത് വേനൽകാലത്ത് കാര്യമായിട്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല വേനൽക്കാലത്തുള്ള ബുദ്ധിമുട്ട് പറഞ്ഞുവെന്നാൽ വെള്ളത്തിൻ്റെ ക്ഷാമമാണ് എങ്ങനെയും പരമാവധി ഈ ഡെയിലിയുള്ള നന ഇല്ലാച്ചാൽ പോലും നമ്മളുടെ ആവശ്യത്തിനുള്ള നന എന്ത് വന്നാലും ഒഴിവാക്കാൻ പാടില്ല കാരണം വെള്ളം കിട്ടാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ വരണ്ട് ഉണങ്ങി നശിച്ച് പോകും സൊ ഇങ്ങനെത്തെ ഒക്കെ പ്രികോഷൻസാണ് നമ്മൾ ഡിഫറെന്റ് ക്ലൈമറ്റും കാലാവസ്ഥയും അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്